ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എൽ പി ജി കണക്ഷൻ എടുത്തിട്ടുണ്ട് എൽ പി ജി കണക്ഷനെക്കുറിച്ച് പറയാനുള്ളത് നേരത്തെ വിറക് ഉപയോഗിച്ചതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പാച പാചകം ചെയ്യുന്നത് എൽ പി ജി കണക്ഷൻ്റെ അടക്കം വരുന്ന സിലിണ്ടർ സ്റ്റൌ എന്നീ കാര്യങ്ങൾ വിറകിനെ അപേക്ഷിച്ച് വളരെ ലളിതമായി നമുക്ക് പാചകം ചെയ്യാൻ നമുക്ക് സാധിക്കും പുക ശല്യം ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിലാണ് എൽ പി ജി സിലിണ്ടറും അതിൻ്റെ സ്റ്റൌവ്വും ഞങ്ങളെ സഹായിക്കുന്നത് വിറകിൽനിന്ന് വരുന്ന പുക വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോളുള്ള വ്യത്യസ്തമായ ഈ രീതി ഞങ്ങളെ വളരെയധികം സഹായിക്കാറുണ്ട് വിറകിൻ്റെ ലഭ്യക്കുറവും വിറകിന് വാങ്ങാൻ വരുന്ന വിലയും എല്ലാം അപേക്ഷിച്ച് എൽ പി ജി കണക്ഷൻ വളരെ നല്ല

അനുഭവം തന്നെയാണ് അതിനുള്ളത് ഇതിൽ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല ചില ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില തന്നെയായിരിക്കും എൽ പി ജി കണക്ഷൻ്റെ വിലവർദ്ധനവ് വളരെ അധികം ദോഷം ചെയ്യുമെന്ന് ദോഷമല്ല നമുക്കൊരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എൽ പി ജി കണക്ഷൻ നല്ലൊരു

ഉപാധിയാണ്